കിച്ചണിലേക്ക് കുറേ പ്ലാസ്റ്റിക്ക് കണ്ടൈനേർസ് മേടിക്കേണ്ടിയ ഒരു സന്ദർഭം ഉണ്ടായി ഞാൻ കുറേ പ്ലാസ്റ്റിക്ക് കണ്ടൈനറുകൾ വാങ്ങിച്ചു ചെറുതും വലുതും എല്ലാം കൂടെ കുറേ മേടിച്ചു ഒന്നും അത്ര അവർ പറഞ്ഞത്രയും നല്ല ക്വാളിറ്റി ഉള്ള ഒന്നും ആയിരുന്നില്ല ചില പാത്രങ്ങളൊക്കെ മൈക്രോവേവിൽ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു പക്ഷെ മൈക്രോവേവിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന പ്ലാസ്റ്റിക്കുകളൊന്നും ആയിരുന്നില്ല അതുകൊണ്ട് എനിക്ക് അത് വളരെ നഷ്ടം ആയിപ്പോയി അതു തന്നെയുമല്ല എൻ്റെ ആരോഗ്യത്തെ ബാധിക്കുന്ന രീതിയിലുള്ള പ്ലാസ്റ്റിക്കുകളായിരുന്നു ഞാൻ അത് ഉപയോഗിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് വേറെ പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടായി പ്ലാസ്റ്റിക്ക് അങ്ങനെ ഞാൻ എൻ്റെ റിലേറ്റീവ്സിനോടും എൻ്റെ ഫ്രണ്ട്സിനോടും ഒക്കെ ഞാൻ അതെ കുറിച്ച് ഞാൻ പറഞ്ഞു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രങ്ങൾ ഇനി കഴിവതും നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലതെന്ന് ഞാൻ പറഞ്ഞു പ്ലാസ്റ്റിക്ക് മേടിക്കരുത് അവർ പറയും കമ്പനിക്കാർ പറയും നല്ല സാധനമാണെന്നൊക്കെ പക്ഷെ നമ്മൾ മേടിച്ച് നമ്മൾ ഉപയോഗിച്ചു കഴിയുമ്പം നമ്മടെ ആരോഗ്യത്തെയാണ് ബാധിക്കുന്നത് ഒരിക്കലും പ്ലാസ്റ്റിക്ക് കണ്ടൈനറുകളിൽ ഭക്ഷണ സാധനങ്ങൾ സൂക്ഷിച്ചു ചിലർ പ്ലാസ്റ്റിക്കിന് അകത്താണ് ടിഫിൻ വരെ കൊണ്ട് പോകാനായിട്ട് ഉപയോഗിക്കുന്നത് പ്ലാസ്റ്റിക്കുകളുണ്ട് നല്ലതാണെന്നും പറഞ്ഞു കൊണ്ട് ഒരിക്കലും അത് ശരിയല്ല അത്തരം പ്ലാസ്റ്റിക്കുകളിന് അകത്ത് ടിഫിനൊന്നും കൊണ്ടു പോകാൻ ഉപയോഗിക്കരുത് പ്രത്യേകിച്ചു നമ്മൾ പൊടികൾ ഇപ്പം കറി പൗഡറുകളൊക്കെ ഇപ്പോൾ ഇട്ട് വയ്ക്കുന്ന മുളക് പൊടി മല്ലിപ്പൊടി അരിപ്പൊടി ഇതൊക്കെ ഇട്ട് വയ്ക്കുന്ന പ്ലാസ്റ്റിക്കുകൾ ക്വാളിറ്റി ഉണ്ട് നല്ലതാണ് വലുതാണ് എന്നൊക്കെ പറഞ്ഞു കൊണ്ട് തരുന്നതാണ് പക്ഷെ അങ്ങനെ ഒന്നും ഉള്ളത് ഉപയോഗിക്കരുത് കുറച്ച് നാൾ കഴിയുമ്പോൾ അവയെല്ലാം പൊട്ടി പൊടിഞ്ഞും പോവുകയും ചെയ്യും നമ്മുടെ ആരോഗ്യവും അതുപോലെ പൊടിഞ്ഞു പോവും അതുകൊണ്ട് കഴിയുന്നിടത്തോളം പ്ലാസ്റ്റിക്ക് പാത്രങ്ങൾ കഴിവതും ഉപയോഗിക്കാതിരിക്കാനും ഇരിക്കെ ഒത്തിരി ദുരനുഭവം പ്ലാസ്റ്റിക്ക് വാങ്ങിച്ചതിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് അതുകൊ ണ്ട് ഞാൻ എൻ്റെ എല്ലാവരോടും പറയും ഇനി നിങ്ങളാരും പ്ലാസ്റ്റിക്ക് പാത്രങ്ങളിൽ കിച്ചണിന് അകത്ത് കയറ്റുകയെ ചെയ്യരുത് കഴിയുന്നിടത്തോളം പ്ലാസ്റ്റിക്കുകൾ നമ്മുടെ വീട്ടിൽ നിന്നും കിച്ചണിൽ നിന്നും നിർത്തികളയുക എന്നാണ് ഞാൻ നിങ്ങൾക്ക് പറയാനായിട്ടുള്ളത് ഒരു നമ്മളുടെ പ്രത്യേകിച്ചു മലയാളികൾക്ക് ഒരു പ്രോഡക്ട് നമ്മൾ വാങ്ങി കഴിയുമ്പോൾ അതിൻ്റെ പാത്രം കഴുകി സൂക്ഷിക്കുക എന്നുള്ളത് എന്തേലും ആഹാര സാധനങ്ങൾ മേടിക്കുന്ന ആണെങ്കിലും ചുമ്മാ പെയിൻ്റിൻ്റെ ആണെങ്കിലും അല്ലാതെ എല്ലാം നമ്മൾ മേടിച്ചു മേടിക്കുന്ന സാധനങ്ങളുടെ എല്ലാം കണ്ടൈനറുകൾ സൂക്ഷിച്ചു വയ്ക്കുന്ന ഒരു പ്രവണത നമ്മൾക്കുണ്ട് പ്രത്യേകിച്ചു സ്ത്രീകൾ ഒരു പാത്രവും കളയത്തില്ല ഇതെല്ലാം അടുക്കി അടുക്കി അടുക്കി കൂട്ടി എവിടെ എങ്കിലും ഫുഡ് മേടിക്കും ഫുഡിൻ്റെ പാർസല് വരുന്ന പാത്രം വരെ നമ്മൾ കളയാതെ കയറ്റി വയ്ക്കും അതുവരെ നമ്മൾ സൂക്ഷിച്ചു സൂക്ഷിച്ചു അവിടെ ഒക്കെ എടുത്ത് കളഞ്ഞേക്ക് വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐസ് ക്രീം കഴിഞ്ഞ പാത്രം ഇതെല്ലാം സൂക്ഷിച്ചും ഇതൊക്കെ വീണ്ടും റീ യൂസ് യ്യുന്നത് വളരെ അപകടക്കാരമാണെന്ന് നമ്മൾക്ക് അറിയും പറഞ്ഞത് മനസ്സിലാക്കിയിട്ടുണ്ട് അറിയാമെന്ന് പറഞ്ഞാലും അതിൻ്റെ ആ ഭംഗി കാണുമ്പം നമ്മൾക്ക് കളയാനായിട്ട് മടിയാണ് അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും ആ പാത്രങ്ങൾ ഉപയോഗിക്കുന്നത് ഇത് നമ്മൾക്ക് ഒരിക്കലും നല്ലതല്ല നമ്മടെ ആരോഗ്യത്തിന് വളരെ മോശമാണ് അത്കൊണ്ട് ഇങ്ങനത്തെ ദുരനുഭവങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാനായിട്ട് നമ്മൾ പ്ലാസ്റ്റിക്ക് പാത്രങ്ങളിൽ കഴിവതും മാറ്റി സ്റ്റീലിൻ്റെയും നല്ല ക്വാളിറ്റി കൂടിയ തരം പാത്രങ്ങളിൽ ഭക്ഷണങ്ങൾ പിന്നെ സൂക്ഷിക്കാനും പദാർത്ഥങ്ങൾ സൂക്ഷിക്കാനും ഒക്കെ മേടിക്കുന്നത് എല്ലാം കൊണ്ടും നല്ലതായിരിക്കും അതുകൊണ്ട് പൈസ ഇച്ചിരി കൂടുതലായാലും നമ്മുടെ ആരോഗ്യത്തിന് അത് നല്ലതാണെന്ന് എല്ലാവരും മനസ്സിലാക്കണം എന്നത് വലിയ കാര്യം